ഹലോ ആ അതുതന്നെ പയ്യന്നൂർ എഞ്ചിനീയർ കോളേജിലെ പ്രിൻസിപ്പൾ തന്നെ ആണ് ആരാണ്

തന്നേ ആ അതിന് മോൾക്ക് മാർക്ക് ഒക്കെ എങ്ങനെയാണാവോ ആ എവിടെ പഠിച്ചിരുന്നത്

അത് ശരി മാത്സിനൊക്കെ എങ്ങനെയാണ് മാർക്ക് ആ ഫിസിക്സ് ഫിസിക്സിനോ തന്നേ വേറെ കോളേജിൽ എവിടെയെങ്കിലും അന്വേഷിച്ചിരിക്കുന്നോ

തന്നാ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ കുറിച്ച് അന്വേഷിച്ചിരിക്കുന്നോ

ഉം ഉം മാർക്കിൻറെ വെച്ചാൽ നോക്കുന്നത് വെച്ചെങ്കിൽ കൂടുതലേറെ കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട് ആ അവരൊക്കെ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ അവരിപ്പോൾ ഒരു ഇതിൽ നിൽക്കുവാണ് കുട്ടികൾ ഒക്കെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് മാർക്ക് ഉള്ള കുട്ടികൾ ഒക്കെ ഇങ്ങനെ നമ്മളെ വിളിച്ചിരിക്കുന്നു അപ്പോൾ ഏതായാലും മോളെ കാര്യം നമുക്ക് നോക്കാം ഫീസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം ആ കേട്ടോ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ കഴിയുന്നതും ഞാൻ ശ്രമിക്കാം ആ കേട്ടോ എന്നാൽ ശരി എന്നാൽ മോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിക്ക് ഏ